മാധ്യമങ്ങളിലൂടെ നമ്മുടെ ബിസിനസ്സിൽ പുതിയ സംരംഭം അല്ലെങ്കിൽ പുതിയ ബിസിനസ്സ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രസ്ഥാനം ഒരു ബിസിനസ്സ് തുടങ്ങാനായിട്ട് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വശങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് മാധ്യമങ്ങളിൽ സാധിക്കുന്നു എങ്ങനെയത് ബിസിനസ്സ് ലാഭകരമായിട്ടു മുന്നോട്ടു കൊണ്ടു പോകാനായിട്ടു സാധിക്കുന്നത് അനുഭവസമ്പന്നരായവരുടെ അഭിപ്രായങ്ങളിലൂടെ അതു മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളൊക്കെ മാറ്റി വളർച്ചയിൽ എത്രമാത്രം ബിസിനസ്സിൽ മുൻ വളർച്ച അല്ലെങ്കിൽ നഷ്ടമില്ലാതെ ലാഭകരമായ രീതിയിൽ കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നുള്ള മനസ്സിലാക്കുവാനായിട്ട് വാർത്താവിനിമയങ്ങളിലൂടെ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഈ കർഷകരെ സംബന്ധിച്ച് അല്ലെ ചെറുകിട കർഷകരെ അല്ലെങ്കിൽ ക്ഷീരകർഷക ഇങ്ങനെയുള്ള കർഷകരുടെ കൃഷിമേഖല അല്ലെ ചെറുകിട വ്യവസായികൾ ഇവർക്കൊക്കെ ഇപ്പോഴും വലിയ ഒരു ബിസിനസ്സിൻ്റെ മേഖല സംബന്ധിച്ച് ഇവിടെ വലിയൊരു നഷ്ടത്തിൻ്റെ ഒരു നഷ്ടത്തിൻ്റെ മേഖലയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് കാരണം ഉണ്ടായിരുന്ന നമ്മുടെ കോവിഡ് പോലെയുള്ള പ്രസ്താ ഒരു രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേ ബിസിനസ്സ് ചെറുകിട വ്യവസായികൾ അതൊക്കെ കടകൾ അടച്ചിടുമ്പോൾ അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി അതൊക്കെ പരാജയത്തിൽ പരാജയപ്പെടുമ്പോൾ സർക്കാറിൻ്റെ ഒക്കെയൊരു സപ്പോർട്ടോ പിന്തുണയോ ഉണ്ടെങ്കിൽ അതൊക്കെ പുനരാർജവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെതന്നെ ക്ഷീര കർഷകരെ സംബന്ധിച്ചു പറയുമ്പോൾ കർഷകർക്കു വലിയ നഷ് ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ കാലിത്തീറ്റയുടെ വില അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളുടെ രോഗങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഭീമമായി ചിലവാകുമ്പോഴേ കർഷകർ എപ്പോഴും പരാജയപ്പെടുന്നു പല മനുഷ്യനും ക്ഷീരകർഷകരെന്നുള്ള എന്നു പറയുന്ന കർഷകർ എപ്പോഴും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതിൽ നിന്ന് എന്തെന്നാൽ അവർക്ക് അതു മുന്നോട്ടു കൊണ്ടു പോകാനായിട്ട് കാലിത്തീറ്റയുടെ വില അല്ലെങ്കിൽ ഭയങ്കര രോഗങ്ങൾ വരുമ്പോഴുള്ള അതിനെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് അവരെല്ലാം പിന്മാറും ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ടു സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ മിൽമ വഴിയൊക്കെ ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുമ്പോൾ കാലിത്തീറ്റയുടെ സബ്സിഡി അല്ലേ അതുപോലന്നെ വൈക്കോൽ സമ്മന്തമായി ഇങ്ങനൊള്ള കർഷകർക്ക് ഇങ്ങനൊള്ള കാര്യം ലഭ്യമാണെങ്കിലെ അവർക്ക് അതെ ബിസ്സിനസ്സ് ചെയ്യുവാനുള്ള അതു പോലെ തന്നെ കർഷകരെ സംബന്ധിച്ചു കൃഷിക്കാരനെ സംബന്ധിച്ച് അതുപോലെ നമ്മുടെ ഈ പദ്ധതി എന്നു പറയുമ്പോഴേ അതീ കാട്ടുമൃഗങ്ങളെ കാട്ടുമൃഗമായെ പന്നി വലിയൊരു നാശം കർഷകരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൃഷി ചെയ്യും എന്നാലത് വളർച്ചയിൽ അതിൻ്റെ ബലം എടുക്കുന്നതിനു മുൻപ് ഇതു കയറി നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണത അതുപോലെ തന്നെ ഈ കീടങ്ങളുടെ ഉപദ്രവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൂടെ കർഷകരാണെങ്കിൽ ഇപ്പോൾ പിന്മാറിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലകളിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതു പോലെ തന്നെ കർഷകരെ സഹായിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുതൽ അവർക്കു കിട്ടുകയാണെങ്കിൽ അവർക്കുള്ള സാമ്പത്തികം അല്ലെങ്കിൽ അവർക്കുള്ള കൃഷി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതിലുള്ള എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കർഷകൻ ചിലപ്പോൾ കാർഷിക വായ്പ എടുത്തോ അല്ലെങ്കിലൊക്കെ ആയിരിക്കും കൃഷി ഇറക്കുക അങ്ങനെ വരുമ്പോഴായിരിക്കും ഇതൊക്കെ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അതു കർഷകർക്കു വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് പലരും ഇപ്പോൾ കൃഷി മേഖല കാർഷിക മേഖലയെന്ന് അല്ലെങ്കിൽ കൃഷി മേഖലയിൽ നിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെതന്നെ മനുഷ്യന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ ചെറുകിട വ്യവസായികൾക്കു പോലും അതു മുന്നോട്ടു കൊണ്ടു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരുതൽ അവർക്കു ലഭിക്കണമെങ്കിൽ ചെറുകിട കർഷകർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ടു സാധിക്കും എന്നുള്ളതാണ് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് ഇന്നീ കാലഘട്ടത്തിൽ കർഷകർക്കു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുന്ന ഒരു കർഷകരെ കർഷകരെ താങ്ങുന്ന ഒരു സർക്കാരായി മാ സർക്കാർ ഉണ്ടാകട്ടെ എന്നും അതുപോലെതന്നെ അവർക്കു വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ യഥാസമയം സർക്കാരിൻ്റെ ഉന്നതങ്ങളിലെ അനുഭവ സമ്പന്നർക്കു ലഭിക്കാനുള്ള അല്ലേ കാർഷിക മാസികകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് അവരെ എങ്ങനെ ലാഭകരമായി കൊണ്ടു പോകാനായിട്ടു സാധിക്കുന്ന നല്ല നിർദ്ദേശങ്ങളൊക്കെ മാസികകളിൽ ലഭിക്കുന്നു നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം